ഹലോ ആ ഇത് കോഴിക്കോടുള്ള ഹൌസ് ബ്രോക്കറല്ലേ ആ ഞാനിവിടെ ഐ ടി പാർക്കിലേക്ക് ഇക്കൊല്ലം ട്രാൻസ്ഫർ ആയി വന്നതാണ് ജോബ് കിട്ടിയിട്ട് വന്നതാണ് അപ്പോൾ എനിക്കൊരു വീട് റെന്റിന് വേണ്ടിയിരുന്നു

ഒരു ടു ബി എച്ച് കെ വീടാണ് വേണ്ടത് ഐ ടി പാർക്ക് അരയിടത്തുപാലം അവിടെയായിട്ടു വരും അവിടെ നിന്നൊരു മാക്സിമം ഫൈവ് കിലോമീറ്ററിനകത്തു വേണം ആ വീട് റെൻറു പിന്നെ ഞാനും എന്റെ ഫാമിലിയുമുണ്ട് ആഹ് ഫാമിലി ഞങ്ങളൊര് ഞങ്ങൾ ടോട്ടലൊര് അഞ്ച് ആൾക്കാർ അത്രയും ആൾക്കാരാണ് വരുന്നത് അപ്പം ഒരു ടു ബി എച്ച് കെ വീട് പ്ലസ് അഡിഷണൽ ഒരു രണ്ടു ബാത്ത് റൂം വേണം അത്രയേ ഉള്ളൂ പിന്നേ രണ്ടു ബെഡ് റൂം ഒരു ഹാൾ ഒരു കിച്ചൺ അത്രയേയുള്ളു ആ അങ്ങനെ കിട്ടണം പിന്നെയെന്താ ഇപ്പം അവിടെ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നറിയാമോ ഏകദേശം ഒരു ടെൻ ടു ട്വൽവ്

ആ കുഴപ്പമില്ല അപ്പാർട്ട്മെന്റ് കുഴപ്പമില്ല ഒരു വർഷത്തേക്കാണ് നമ്മൾ റെന്റിനെടുക്കുന്നത്

ആഹ് ഓക്കേ

ആ മാരീഡാണ് ആ ഓക്കേ ഓക്കേ കുഴപ്പമില്ല ഇത് കോഷൻ ഡെപ്പോസിറ്റ് എത്രയാണ് വരുന്നതെന്നറിയാൻ പറ്റുമോ ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ ഒരു വൺ ലാഖിന്റെ ഉള്ളിലൊതുക്കാൻ പറയണം ആഹ് ഓക്കേ അത് കുഴപ്പമില്ല ആ ഞങ്ങൾ മാക്സിമം ഈ മന്ത് ഞാൻ ആഗസ്റ്റിൽ അവിടെ ജോയിൻ ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോഴത്തേക്ക് ആഗസ്റ് ഒന്നാം തീയ്യതിയിൽത്തന്നെ നമ്മൾ അങ്ങോട്ട് വരുന്നതാണ് അല്ലെങ്കിൽ ആഗസ്റ് മുപ്പതിനായിരിക്കും രണ്ടു ദിവസം മുന്നേ അവിടെ വന്ന് സെറ്റിൽ ആയിട്ട് ഇരിക്കാനുള്ള പരിപാടിയാണ് ആഹ് ഞാനെന്നാൽ ഒരു മൂന്നുനാല് ദിവസത്തിനുള്ളിൽ ഒന്ന് കാലിക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് എഗ്രിമെന്റ് എഴുതി എല്ലാം കണ്ടു ശരിയാക്കാം ആഹ് എന്നാൽ നിങ്ങളെ ഈ ഏജൻസിയുടെ ലൊക്കേഷനും നിങ്ങളത് സംസാരിച്ചിട്ട് ആ വീടിന്റെ ലൊക്കേഷനൊന്നയച്ചാൽ ഞാൻ അങ്ങോട്ടോ എങ്ങോട്ടാണെന്നു വച്ചാൽ വരാം ആ ഓക്കേ താങ്ക് യൂ